എനിക്ക് അതായത് അത് ഇപ്പോൾ ടി വി ടി വിയിലെ ഷോകൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും എനിക്കിഷ്ടപ്പെടുന്നത് ഈ കോമഡീസ് അങ്ങനത്തെ ഈ ഒരു ചിരി ബംബർ ചിരി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കോമഡിനോടൊക്കെ ഭയങ്കര താൽപര്യം ഉള്ളൊരു വ്യക്തിയാണ് ഇനി ഞാൻ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാന് എനിക്ക് ബിഗ് ബോസ് വലിയ രീതിയിലുള്ള ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാനെന്റെ വൈഫ് ഇരുന്ന് കാണുന്നത് കണ്ടിട്ട് ഞാൻ ഇരുന്ന് കാണാറും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് കാണും അല്ലാണ്ട് വേറെ അതിനുള്ള ഒരു അഡിക്റ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്റെ വൈഫ് ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിൽ അഡിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്രയൊന്നും ഇല്ല ഞാൻ പക്ഷേ എനിക്ക് കുഴപ്പമില്ല കണ്ടിരിക്കാം അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കുറേ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് ഇപ്പം തമിഴിൽ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള ഇഷ്ടപ്പെട്ട പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതായത് പഴയ രീതിയിലുള്ള പടങ്ങൾ അതായത് വിജയിന്റെ ഫ്രണ്ട്സിന്റെ ഒരു തമിഴ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തമിഴ് പടമാണ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൂര്യേന്റെ ഏഴാം അറിവ് ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഇറങ്ങിയ രജനീകാന്തിന്റെ കാ മറ്റേ ജെയിലർ എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട് അത് ഇപ്പോൾ ഞാൻ അടുത്ത് കണ്ടിട്ടേ ഉള്ളൂ അടിപൊളി പടമാണ് നല്ലൊരു നല്ല ഒരു അതായത് നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പടമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയും ടി വി ഷോകളും